ഹലോ മാഡം അതെ അതെ ഗൈഡാണ് നിങ്ങളെത്ര പേരുണ്ടാവും ഫോർ ഫൈവ് മെമ്പേഴ്സ് വയനാട് കുറേ കാണാൻ പറ്റിയ സ്ഥലങ്ങൾ ഉണ്ട് നിങ്ങൾ ഏതൊക്കെയാണ് പോവാനുദ്ദേശിക്കുന്നത് സ്ഥലം ഓ ഓ ഓക്കേ തോൽപ് നമുക്ക് തോൽപ്പെട്ടിയുണ്ട് മുത്തങ്ങാ ഫോറെസ്റ്റ് ഉണ്ട് അപ്പോൾ മുത്തങ്ങാ ഫോറെസ്റ്റിൽ ട്രക്കിങ്ങ് ഉണ്ട് നമ്മൾ അതിനൊരു ജീപ്പ് ഉണ്ട് ട്രക്ക് ചെയ്യാൻ അങ്ങനെത്തെ കുറേ പരിപാടി ഉണ്ട് നിങ്ങളെവിടെയാ വെച്ചാൽ ഞങ്ങൾ വന്ന് കളക്ട് ചെയ്യാൻ നിങ്ങളെ ഞാൻ നമ്മൾ കൽപ്പറ്റയാണ് നമ്മുടെ മെയിൻ സ്ഥലം ആ ഓക്കേ കൽപ്പറ്റ റിസോട്ടാണെങ്കിൽ നമ്മുടെ ഇതിൽ റിസോട്ടും ഉണ്ട് ഫുഡ് ഉണ്ട് അതിനൊക്കെ എക്സ്ട്രാ പേയ്മെൻറ്റാവും ഞാൻ ഓ പാക്കേജ് നോക്കുന്നുണ്ട് വൺ വീക്കാണെങ്കിൽ പെർ പേഴ്സന് സെവെൻറ്റി സെവൻ തൗസൻഡ് റുപ്പീസാണ് പെർ പേഴ്സൺ അത് നമുക്ക് കുറക്കാം റിസോട്ട് ഫുഡ് എല്ലാംകൂടിയാണ് ആ അതെല്ലാം കൂടിയാണ് ഓക്കേ ആ എല്ലാ തരത്തിലുണ്ട് നമുക്ക് ഡാമുണ്ട് കാരാപ്പുഴ ഡാമുണ്ട് നെല്ലാർച്ചാൽ ഉണ്ട് അല്ലാണ്ട് നമുക്ക് പോവണമെങ്കിൽ മുത്തങ്ങാ ഫോറെസ്റ്റ് പിന്നെ നന്നായിട്ട് ഇത് ആ കൊളുകപ്പാറ ആറാട്ട് പാറ അങ്ങനെത്തെ സ്ഥലങ്ങളുണ്ട് പിന്നെ തോൽപ്പെട്ടി വന്യജീവി സങ്കേതം ഉണ്ട് അങ്ങനെ കുറേ സ്ഥലങ്ങൾ ഉണ്ട് ആ എല്ലാ ദിവസവും ഉണ്ടാകും ഞാൻ തന്നെയായിരിക്കും ഉണ്ടാവുക എല്ലാ ദിവസവും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും റിസോട്ടിലാണെങ്കിൽ നിങ്ങൾക്കെന്ത് ഹെല്പിനാണെങ്കിലും ഞാനുണ്ടാവും ബഡ്ജറ്റ് സെവൻ തൗസൻഡ് റുപ്പീസ് മതി നിങ്ങളുടെ ഈ ഒരാഴ്ചത്തേക്കുള്ള ചെലവ് ഫുഡ് എക്സ്പെ ട്രാവെല് എക്സ്സ്പെൻസ് എല്ലാം കൂടി ആ അപ്പം പേ ചെയ്ത ആ ട്രക്കിങ് ഓക്കേ ഇനിയെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കാം ഓക്കേ ഓക്കേ എല്ലാവരെയും കാലിക്കറ്റ് വന്ന് കളക്ട് ചെയ്യണമെങ്കിൽ ഞങ്ങൾ അവിടുന്ന് വന്ന് കളക്ട് ചെയ്യാം നിങ്ങളെ ആ ഓക്കേ ടാങ്ക് യു